ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ആഗോഗ്യമേഖലയുടെ ഗുണനിലവാരം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അതായത് നല്ലൊരു ആരോഗ്യ മേഖല തന്നെയാണ് നമുക്ക് കിട്ടിയത് കരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും നമുക്ക് നമുക്ക് മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് അതായത് പാവപ്പെട്ടവർക്കും കാര്യങ്ങൾക്കൊക്കെ അവർക്കൊക്കെ പിന്നെ കാണിക്കാനും അതായത് ഫ്രീയായിട്ട് കാണിക്കാനും അങ്ങനെത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉപകാരമുണ്ട് ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് എന്നൊരു കാര്യമിറങ്ങി എന്നതുകൊണ്ടുതന്നെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് അതായത് ആ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീയായിട്ട് ഡോക്ടറെ കാണിക്കാനും പിന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും എല്ലാ കാര്യങ്ങളും പിന്നെ അങ്ങനെ ഇതായിട്ടുണ്ട് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ വല്ല അസുഖങ്ങളും വാരാണ്ടിരിക്കാനുള്ള ഒരു പിന്നെ ടി ടി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും അതായത് പതിനഞ്ച് വയസുള്ള വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊരു അസുഖം വന്നാൽ നമുക്കതിനനുസരിച്ചുള്ള വാക്സിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻ്റ് തരുന്നുണ്ട് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയുടെ കാര്യത്തില് കേരളം ഒരുപടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെയൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ